എൻ്റെ ഫസ്റ്റ് പ്രൊഡക്ട് ഗ്യാസാണ് അതായത് നമ്മള് കുക്ക് ഒക്കെ ചെയ്യുന്ന ഗ്യാസ് അപ്പം ആദ്യമൊന്നും നമ്മളുടെ അടുത്ത് ഇങ്ങനെ ഗ്യാസ് ഉണ്ടായിരുന്നില്ല നമ്മള് അടുപ്പ് തന്നെ ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം പിന്നെ നമ്മള് ഇങ്ങനെ പിന്നെ പഞ്ചായത്തിലും അക്ഷയയിലും കൊടുത്തിട്ടാണ് നമുക്ക് ഈ ഗ്യാസ് കാര്യങ്ങളൊക്കെ കിട്ടിയത് അപ്പം അത്യാവശ്യം നല്ലൊരു നമുക്ക് അതായത് ഗ്യാസ് ഒന്നും ഇവിടെ നമുക്ക് കുറേ നമ്മുടെ കഷ്ടപ്പാടും കാര്യങ്ങളും ഒക്കെ കുറഞ്ഞു നമ്മള് ചോറും കറിയും ഒക്കെ ഒരടുപ്പത് തന്നെ ആയിരുന്നു ചോറും കറിയും കാപ്പിയും കടി എല്ലാം ഉണ്ടാക്കുന്നത് ആ ഒരടുപ്പത്ത് തന്നെ ആയിരുന്നു അപ്പം ഗ്യാസും കൂടെ വന്നപ്പോൾ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് വളരെ കുറഞ്ഞു കാരണം അതില് പെട്ടെന്ന് നമുക്ക് ഒരു കാപ്പി ഉണ്ടാക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമുക്കൊരു അഞ്ച് മിനിറ്റ് ആറ് മിനിറ്റുകൊണ്ട് നമുക്ക് അത് റെഡി ആയികിട്ടും പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ചോറ് മാത്രം അതില് വെച്ചാൽ മതി കറി ഒക്കെ നമുക്ക് കുക്കറിൽ വെക്കാൻ പറ്റും പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമുക്ക് പാത്രം കഴുകാന് അതായത് കരി പാത്രങ്ങളൊക്കെ കഴുകുന്നത് കുറച്ച് കുറയും അങ്ങനത്തെ പല ഉപകാരങ്ങളും ഗ്യാസ് കൊണ്ട് ഉണ്ട് അപ്പം ഗ്യാസ് കിട്ടിയതില് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമുക്ക് കുറെ നമുക്ക് ശാരീരികമായിട്ട് നമ്മള് അത് നമ്മളുടെ അധ്വനം കുറെ കുറഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്